ഹലോ ഹലോ സെൻറ് തോമസ് പി ജി ആണോ ഇത് ആ ചേച്ചി എൻ്റെ പേര് ഗൗതം ഷാജി എന്നായിരുന്നേ ചേച്ചി ഞാനൊരു പി ജി തപ്പി ഇങ്ങനെ നടക്കുവായിരുന്നു ഞങ്ങൾ രണ്ട് പേർ ആയിരുന്നേ രണ്ട് പേർക്കുള്ള പി ജി ആയിരുന്നു ഞാൻ ശിവദ കോളേജ് ഓഫ് എൻജിനീയറിങ്ങിൽ ആയിരുന്നേ പഠിക്കുന്നതേ ആ ഓ ആ ഓക്കെ ചേച്ചി പ

ആ ഓക്കെ ചേച്ചി ഓക്കെ ചേച്ചി എനിക്ക് മനസ്സിലായി എൻ രണ്ട് പേരെ കയറ്റാൻ എനിക്കൊരു രണ്ട് പേർക്കുള്ള റൂം ആണ് എങ്ങനെ അവിടുത്തെ റൂം സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് എത്ര പേർക്കുള്ളതൊക്കെ ആണ് ഉള്ളത് ഒരു റൂമിൽ എത്ര പേർക്ക് താമസിക്കാൻ പറ്റും ചേച്ചി ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ളത് മതി നാല് പേർക്കുള്ളത് വേണ്ട ഒരു റൂം രണ്ട് പേർക്ക് പറ്റുമോ നാല് പേർക്കുള്ള കാശ് തരാം

ആ അത് മതി അങ്ങനെ ആണെങ്കിലും മതി ഞങ്ങൾ വന്ന് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം ചേച്ചി അവിടുത്തെ എങ്ങനെയാണ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങൾ ഒക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എത്ര ആറരയ്ക്കോ ആ ആറരയ്ക്ക് മുന്നേ കയറണം ആ ഓക്കെ ഓക്കെ ആ നടത്താം അയ്യോ പതിനായിരം രൂപ അഡ്വാൻസോ അഡ്വാൻസ് തിരിച്ച് തരുമോ ആ ഓ ഓക്കെ ഓക്കെ ഞാൻ വാടക എത്രയാണ് തരേണ്ടത് അയ്യായിരത്തി അറുനൂറ് രൂപ മാസം വാടക റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയോയുമോ ഏച്ചി റൂമിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് പറയാമോ

ആ ഓക്കെ അതെല്ലാം കുത്തിക്കോളാം ചേച്ചി ഓ രണ്ട് ഫാൻ ഉണ്ടല്ലേ കൊള്ളാം രണ്ട് ബെഡ് ഉണ്ടോ ഞങ്ങൾ രണ്ട് പേരുണ്ട് അ ആ ഓക്കെ ഓക്കെ ഞാൻ ചോയ് ചോദിച്ചെന്നേ ഉള്ളൂ പി ജി ആയതുകൊണ്ട് അറിയാമല്ലോ ആ ആ ഞങ്ങൾ ഒത്തിരി തേപ്പുപെട്ടി തേച്ചാൽ കുഴപ്പം ഉണ്ടോ ചേച്ചി ഞങ്ങൾ തേപ്പുപെട്ടി ഉപയോഗിച്ചാൽ തേപ്പുപെട്ടി ഉപയോഗിച്ചാൽ തേപ്പുപെട്ടി അയൺ ബോക്സ് ആ ഒത്തിരി നേരം തേക്കാമല്ലോ അല്ലേ ആ ഓക്കെ ഓക്കെ ഹീറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ ഹീറ്റർ ഹീറ്റർ ആ ചൂട് വെള്ളം വരുന്ന പൈപ്പ് ഉണ്ടോ ആ ഓക്കെ ഓക്കെ ദേ മോട്ടോറിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് ചേച്ചി വെള്ളം വരുമ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത് വെള്ളം വരാത്തപ്പോൾ എന്നാ ചെയ്യേണ്ടത് ആ വെള്ളം ഒഴിച്ച് അല്ല ചേച്ചി ഞാൻ കുളിക്കുമ്പോൾ എങ്ങനെയാണ് ചേച്ചിയെ വിളിക്കുന്നത്

ആ ചേച്ചി ഞാൻ വിചാരിച്ചു ഇത്ര സംവിധാനം ആയതുകൊണ്ട് മറ്റേ വെള്ളം തീരുമ്പോൾ തന്നെ മോട്ടർ അടിക്കുന്ന സിസ്റ്റം ആണെന്ന് ആ ചേച്ചി ആ ഓക്കെ ഓക്കെ ആ അതുമതി ചേച്ചി അതെന്തായാലും ആ തുണി വിരിക്കാൻ എന്നാ ചേച്ചി ഉള്ളത് അയ ഉണ്ടോ തുണി വിരിക്കാൻ അയ അയ ഒക്കെ മണ്ടയിൽ കെട്ടാൻ പറ്റുമോ ആ ആ അയ ഉണ്ടോ ഓക്കെ ഓക്കെ ഞാനും ഞാനും പിന്നെ എൻ്റെ ഒരു കൂട്ട് അങ്ങനെ ആരാണെങ്കിലും കുഴപ്പം ഇല്ലല്ലോ അല്ലേ ചേച്ചി പ്രതീക്ഷിക്കുന്നതോ വേണ്ടതോ ഓക്കെ ചേച്ചി ആ ഓ ആ അങ് ആ ആ ഭർത്താവും കൂടെ നടത്തുന്നത് ആയതുകൊണ്ട് രണ്ട് ആണുങ്ങളേ പറ്റുള്ളൂ അല്ലേ ഓക്കെ ചേച്ചി ആ കൂ ആ ഓ ചേച്ചിയുടെ ഭർത്താവിന് എന്തായിരുന്നു ജോലി ചേച്ചിക്കെന്നാ ജോലി നിർ ആ ടീച്ചർ ആണോ ചേച്ചി പി ജിയുടെ അവിടെ ഞങ്ങൾക്ക് കൂട്ടുകാർ ഉണ്ടോ വേറെ വേറെ കൂട്ടുകാർ ഉണ്ടോ പി ജിയിൽ

ആ ചെക്കന്മാരുണ്ടല്ലേ ആ ബി കോം ആണല്ലേ പഠിക്കുന്നത് ആ ആ ഓക്കെ ചേച്ചി ഞാൻ അടുത്ത ദിവസം വന്ന് കണ്ടു നോക്കിക്കോളാം കേട്ടോ ചേച്ചി എൻ എൻ്റെ പേര് ഗൗതം എന്നാണ് ഒന്ന് എഴുതി വെച്ചേര് ആ ഓ ഓക്കെ ചേച്ചി താങ്ക് യു താങ്ക് യു യാ ഓക്കെ ഫൈൻ യാ ബൈ